ചെടികൾ വളർത്താൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന മണ്ണ് എക്കൽ മണ്ണാണ് ചെടികൾക്ക് ഏറ്റവും നല്ല മണ്ണ് കൂടിയാണ് എക്കൽ മണ്ണ് ചെടികൾ വളരുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നത് എന്നു പറഞ്ഞത് ചെടികൾക്ക് ഉപയോഗിക്കുന്ന ചെടികൾക്ക് ഉപയോഗിക്കുന്ന മണ്ണാണ് കൂടാതെ ചെടികൾ വളർത്താനായി വളം ഉപയോഗിക്കാറുണ്ട് അതിനായി നമ്മൾ ജൈവ വളങ്ങൾ വീട്ടിൽ തന്നെ വരുന്ന പച്ചക്കറിയുടെയും മറ്റും തൊലി തുടങ്ങിയ സാധനങ്ങളുടെ വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ചെടികളുടെ വളർച്ചയ്ക്കായിട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഈ ചാണകം പുകയില വെള്ളം തുടങ്ങിയ സാധനങ്ങളാണ് ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലും നല്ലത് പിന്നെ പുകയില പട്ട തുടങ്ങിയ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കീടനാശിനികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും മറ്റുമായിട്ട് എന്താണ് സ്പ്രേ ചെയ്ത് ചെടികളിൽ പ്രയോഗിക്കാറുണ്ട് അത് കൂടുതൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാവാനും വിളകൾ ഉണ്ടാകാനുമായിട്ട് ചെടിയെ സഹായിക്കാറുണ്ട്